ഹലോ റോളക്സ് റെസ്റ്റോറൻറ്റ് അല്ലേ ഞാനവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഓഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ ഞങ്ങൾക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു അതായത് നമ്മൾ പനവല്ലീന്നു പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ കുറച്ച് ആൾക്കാരിണ്ടാകും അപ്പോൾ അതിന് കുറച്ച് ഭക്ഷണം എല്ലാംകൂടെ എത്രയാവും എന്നൊക്കെ അറിയാൻ വേണ്ടീട്ട് വിളിച്ചതായിരുന്നു ആ ഒരു പത്തിരുപതുപേരുടെ ഒരു പാർട്ടി ആണ് നമ്മളൊരു എൻ്റെയൊരു കൂട്ടുകാരെൻ്റെ ബർത്ഡേ ആണ് അപ്പം അതൊന്ന് ആഘോഷിക്കാൻ വേണ്ടീട്ടായിരുന്നു അപ്പോൾ കുറച്ചാൾക്കാരുണ്ടാകും അപ്പോൾ നിങ്ങളൊന്ന് ഭക്ഷണം എത്തിച്ചു തരുമോ എന്നറിയാൻ വേണ്ടീട്ട് വിളിച്ചതായിരുന്നു ആ ഓക്കെ ഓക്കെ ആ ഇരുപതുപേർക്കുള്ള ഫുഡ് ബിരിയാണിയാക്കിയാൽ മതി ആ അതെ ബിരിയാണി തന്നെ ആ ആ ചിക്കൻ ആ അതെ ആ ഓക്കേ ഓക്കേ ആ അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇന്ന് വൈകുന്നേരം ഒന്നെത്തിക്കാൻ പറ്റുമോ ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോൾ ഒന്നെത്തിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു എട്ടുമണിത്തൊട്ടാണ് ഫങ്ക്ഷൻ തുടങ്ങുന്നത് അപ്പോൾ അതിനു മുന്നേയൊന്ന് ഫുഡ് എത്തുവാണെങ്കിൽ നല്ലതായിരുന്നു ആ ഓക്കെ പൈസ ലേശം അഡ്ജസ്റ്റ് ഒക്കെ ആക്കാൻ പറ്റൂലേ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒന്ന് കൊണ്ടുവരുട്ടോ ഞാൻ സ്ഥലം ഞാൻ വാട്ട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചു തരാം ഓക്കേ എന്നാൽ